ഇപ്പൊൾ ഉള്ളൊരു പ്രശ്നംന്ന് പറഞ്ഞ് കഴിഞ്ഞാ നമുക്ക് നമ്മളൊരു വണ്ടി എടുത്ത് കഴിഞ്ഞാല് പല രീതിലുള്ള ടാക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് സർക്കാര് നല്ല രീതില് നമ്മുടെ വലിച്ചുകൊണ്ടിരിക്കാണ് കാരണം എന്താന്ന് വച്ച് കഴിഞ്ഞാല് നമ്മക്കിപ്പോ ഒരു വണ്ടി നമ്മള് സ്വന്തായിട്ട് എടുത്ത് കഴിഞ്ഞാൽ ആ റോട്ടിലിറക്കണമെങ്കിൽ തന്നെ റോഡ് ടാക്സും കാര്യങ്ങളൊക്കെ നമ്മള് കൊടുക്കണ്ട ഒരു അവസ്ഥയാണ് നമ്മടെ കയ്യിൽ നിന്ന് തന്നെ നമ്മള് നികുതിയും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് നമുക്കിട്ട് തന്നെ പണിയുന്ന ഒരു അവസ്ഥേക്കെയായിട്ടാണ് ഉള്ളത് ഇപ്പം വണ്ടി നമുക്ക് മര്യാദക്കൊന്ന് റോട്ടിലിറക്കാൻ പറ്റാത്തൊരവസ്ഥേമ് കാര്യങ്ങളൊക്കെ ആണ് ഇപ്പൊൾ തന്നെ ഒരു ഒരു നമ്മളെ കേരളത്തിലോടുന്ന ഒരു ബസ്സുണ്ടായിരുന്നു ഒരു റോബിൻന്ന് പറഞ്ഞിട്ടുള്ളൊരു ബസ്സ് അപ്പം അത് ഈ ഇടക്ക് എം വി ഡീം കാര്യങ്ങളൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊൾ അതെന്ന് പറഞ്ഞാല് അവര് ഒരു ലക്ഷത്തിച്ചില്ലറ രൂപ ടാക്സ് കൊടുത്തിട്ടാണ് ആ വണ്ടി ഓടുന്നത് അപ്പം അത് ഇൻട്രസ്റ്റായിട്ടാണ് അവര് ഓടുന്നത് അപ്പ അത് ലീഗൽ അല്ല അങ്ങനെ ഓടാൻ പാടില്ലാന്ന് പറഞ്ഞ് അവരുടെ വണ്ടി പിടിച്ചെടുക്കുവോക്കെ ഉണ്ടായിരുന്നു അപ്പൊൾ അതൊരു മോശമായിട്ടുള്ള ഒരു കാര്യായിട്ടാണ് എനിക്ക് തോന്നിയത് കാരണം സർക്കാരിന് ഈ പൈസയും കാര്യങ്ങളൊക്കെ നമ്മള് ടാക്സടച്ചിട്ട് സർക്കാര് തന്നെ ആ വണ്ടി പിടിച്ചെടുക്കുക ആ ടാക്സും കാര്യങ്ങളൊക്കെ എന്താ പറയുക അടച്ചതിന് ശേഷം അപ്പം അതൊന്നും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല അപ്പം അതൊരു വളരെ ഒരു പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത്